കായിക മത്സരങ്ങള് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നു നമ്മൾ കായിക മത്സരങ്ങള് നേരിടാതെ ആരും ഈ ഭൂമി വിട്ടു പോകുന്നില്ലയെന്നു തന്നെയാണ് എന്റെയൊരു വിശ്വാസം വളരെ ചെറിയ രീതിയിലുള്ള ആള്ക്കാർ മാത്രമേ കായികത്തെ അപേക്ഷിച്ച് മറ്റു പഠിത്തവും ആ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ആകര്ഷിക്കുന്നുള്ള എനിക്ക് തീര്ച്ചയായിട്ടവര്ക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ എന്നാൽ പോലും കൂടുതലാള്ക്കാര്ക്ക് ഈ കായികത്തോടുള്ള താല്പര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു ചെറു പ്രായത്തിൽ തൊട്ടെ ക്രിക്കറ്റ് കളി ഫുട് ബോൾ കളി മറ്റു കളികൾ ബാഡ്മിന്റന് അതുപോലെ ടെന്നീസ് അതു പോലെ ക്യാരംസ് വളരെ ബുദ്ധിപരമായിട്ടല്ലെ എല്ലാ കളികളുമതിന്റേതായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളൊക്കെയുണ്ട് ചിലര്ക്ക് ചില ഇതിനൊക്കെ വളരെയധികം ശക്തി ആവശ്യമാണ് പ്രത്യേകിച്ച് ക്രിക്കറ്റ് ഫുട് ബോൾ വോളി ബോൾ കബഡി വടം വലി പോലെയുള്ള കായികങ്ങള്ക്കൊക്കെ അപ്പോൾ തീര്ച്ചയായിട്ടും കായികം നമ്മളെ പ്രചോദിപ്പിക്കും നമ്മുടെ പല കാര്യങ്ങള്ക്കും നമുക്ക് വലിയ രീതിയിലൊരു ആത്മ വിശ്വാസം പകര്ന്നു നല്കും എല്ലാ കാര്യങ്ങളും ചെയ്യാന് അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാനൊരു ശക്തി ഒരു ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം നമ്മളെ ഉള്ളിലുണ്ടാകും അപ്പം ഈ അതു പോലെ തന്നെ നമ്മുടെ ഈ മത്സരങ്ങളോടൊക്കെ നമ്മുടെ ഒരു കൂട്ടായ്മ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുന്നമുക്ക് കാണാൻ സാധിക്കുന്നു അതിന്റൊരു ശക്തി നമ്മൾ കാണാൻ സാധിക്കുന്നു ഒരു കൂട്ടായിട്ടുള്ള പ്രവര്ത്തനത്തെ നമ്മൾ കാണാന് സാധിക്കുന്നു കാരണം ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ കൂട്ടായിട്ടു പ്രവര്ത്തിച്ചാല് മാത്രമെ നമുക്ക് പുരോഗതി ഉണ്ടാകുള്ളു അല്ലെങ്കിൽ നമുക്കതിലൊക്കെ വിജയിക്കാന് സാധിക്കത്തുള്ളൂ അതു തീര്ച്ചയായിട്ടും ചില നിബന്ധനകളാണ് അപ്പോൾ ആ ഈയൊരു കൂട്ടമായിട്ടുള്ള പ്രവര്ത്തനങ്ങള് നമ്മുടെ കായികമായിട്ടുള്ള കഴിവുകള് അല്ലെങ്കിൽ നമ്മളത് ഏര്പ്പെട്ടിരിക്കുന്ന രീതിയിൽ നമുക്കതിനെ ഉപയോഗിക്കാന് നല്ല രീതിയില് ഫലപ്രദമായിട്ടു സാധിക്കുന്നു തീര്ച്ചയായിട്ടും അതുപോലെതന്നെ എന്താണ് നമ്മുടെ കായികത്തോട് നമുക്ക് വലിയതൊരു ആത്മവിശ്വാസം ശക്തി ബലം എല്ലാ രീതി എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടു കാണാനുള്ള ഒരു സമീപനമൊക്കെ നമുക്കുണ്ടാകുന്നു അതു പോലെ ഈ കാര്യങ്ങളൊക്കെ കായികപരമായിട്ടുള്ള കഴിവുകളെ അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം മറ്റുള്ളവര്ക്കു കൂടി പകര്ന്നു കൊടുക്കുമ്പോൾ തീര്ച്ചയായിട്ടും അവരും ഈ കഴിവുകളിലെ കഴിവുകളിലേക്കു വരികയും തീര്ച്ചയായിട്ടും അവര്ക്കു ജീവിതത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങള് ഉണ്ടാകുകയും ചെയ്യുന്നു